ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തയ്യൽ പഠിക്കാനായിട്ട് പോയിട്ടുണ്ട് തുന്നൽ പഠിക്കാനായിട്ട് പോയിട്ടുണ്ട് അന്നത്തെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായി തയ്ച്ച് ഒരു ഉടുപ്പ് ഇടുക എന്ന് ഉള്ളത് അപ്പം അതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തയ്ക്കാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അന്ന് ഉണ്ടായ ഇത് ഒരു അനുഭവം എന്ന് പറയുന്നത് എന്നെ പഠിപ്പിച്ച അദ്ധ്യാപകന് അദ്ധ്യാപിക എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് നമ്മുടെ ആ ആ ഒരു ഒരു ഗുരു എന്ന് പറയുന്നത് പോലെ തന്നെ അവരുടെ ശിഷ്യന്മാര് അവരേക്കാൾ മികച്ചതായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു അദ്ധ്യാപകനായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഏറ്റവും കുഞ്ഞ് എനിക്ക് അതിൻ്റെ ഒരു ബേസിക് കാര്യം പോലും അറിയാതെ ആണ് ഞാൻ പോയത് എന്നിരുന്നാൽ പോലും എന്നെ അടിസ്ഥാനപരമായിട്ടുള്ള തുന്നൽ മുതൽ എന്തൊക്കെ ചെയ്യാം അതിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ അതിൽ കലാപരമായിട്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് എല്ലാം എനിക്ക് പറഞ്ഞു തന്നിരുന്നു അപ്പം അങ്ങനെ ഒരു ദിവസം ഞാൻ തൈച്ചോണ്ടിരിക്കുമ്പോൾ ആണ് ഒരു ഒരാൾ ഒരു ബ്ലൗസ് തയ്ക്കാനായിട്ട് എത്തുന്നത് അപ്പം ആ അദ്ധ്യാപകന് എന്നോട് പറഞ്ഞു ഇതൊന്ന് തയ്ച്ച് നോക്കൂ എന്ന് പറഞ്ഞ് എനിക്ക് അതിനുള്ള ഒരു സ്വാതന്ത്ര്യം തന്നു ഏറ്റവും അത്രയും അവരുടെ കടയിൽ കൊണ്ടു വന്നതാണ് അവർ അത്രയും വിശ്വസിക്കുന്ന കൊണ്ടാണ് എനിക്ക് അത് തന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും തയ്ക്കാനായിട്ട് ഒരു കഴിവ് ആയോ എന്ന് ഞാൻ ചോദിച്ചു സംശയത്തോട് ചോദിച്ചപ്പോള് ആ അദ്ധ്യാപകൻ എന്നോട് പറഞ്ഞത് അതായി എന്ന് ഉറപ്പ് ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പം ഇനി ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ബ റിസ്ക് എടുത്താൽ മാത്രമേ നമ്മൾ വിജയിക്കാനാവുവല്ലേ അപ്പം അതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കു നമുക്ക് പരാജയപ്പെടുവായിരിക്കും ചിലപ്പോൾ പക്ഷേ ആ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് എത്തിയാലാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കു എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് ഞാൻ ഇതിന് മുതിർന്നത് പക്ഷേ ആ ഒരു ഉറപ്പിൻ്റെ പേരിൽ എനിക്ക് നന്നായിട്ട് തയ്ക്കുവാനായിട്ട് സാധിക്കുകയും എനിക്ക് വളരെ അതിന് നല്ല അപ്രിസിയേഷൻ കിട്ടുകയും ഒക്കെ ചെയ്തു അപ്പം അന്ന് മുതലാണ് എൻ്റെ എനിക്ക് തയ്ക്കാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് തുന്നാനായിട്ട് എനിക്ക് ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ എനിക്ക് അതിനകത്ത് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് തന്ന് അങ്ങനെയായിരുന്നു അപ്പം അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ച അദ്ധ്യാപകനായത് കൊണ്ട് മാത്രമാണ് മറ്റൊരാൾ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഞാൻ ഒന്ന് പഠിച്ചിട്ട് വീട്ടിൽ വന്നിരിക്കുകയോ ചിലപ്പോൾ വല്ലപ്പോഴും തുന്നുകയൊക്കെയോ ചെയ്യുവായിരുന്നുള്ളൂ പക്ഷേ അങ്ങനെ എന്നെ അന്ന് അതിനു വേണ്ടി പ്രേരിപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് അത്രയും കഴിവ് കിട്ടിയത് അപ്പം അതിൽ ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നു അത് എനിക്ക് ഏറ്റവും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം ഒരു വിദ്യാർത്ഥി എന്ന നിലയില് അല്ലേല് എന്തെങ്കിലും ഒരു പഠിച്ച് തുടങ്ങി എന്തെങ്കിലും ഒക്കെ ആകുന്നതിന് മുന്നെ തന്നെ ഒരു ഉത്തരവാദത്വം ഏൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു അദ്ധ്യാപകൻ്റെ ഏറ്റവും നല്ല ഗുണമാണ് ആ അദ്ധ്യാപകന് തരുന്ന കോൺഫിഡൻസാണ് അത് എന്ന് പറയുന്നത് അപ്പം ആ അദ്ധ്യാപകന്റെ പേര് നിലനിർത്തി കൊണ്ട് തന്നെ ആ ഒരു കാര്യം പൂർത്തികരിക്കൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് അത് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഓർത്തിരിക്കുന്ന ഒരു കാര്യവും ആയിരിക്കും അന്ന് എന്നെ അതിന് പ്രേരിപ്പിച്ചില്ല ആയിരുന്നെങ്കില് ചിലപ്പോൾ ഞാൻ ഇതിപ്പം വലിയ കാര്യമായിട്ട് കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരിക്കും പക്ഷേ അതിന് വേണ്ടിട്ട് എന്നെ പ്രേരിപ്പിച്ചു ആ അദ്ധ്യാപകൻ എനിക്ക് തന്ന ഒരു ഉത്തേജനമാണ് ഞാൻ ഇന്നും ചെയ്തോണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ തുന്നൽ ഒരു എൻ്റെ ഒരു പ്ര ഒരു ഒരു സാമ്പത്തിക കാര്യമായ ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുവാന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അന്ന് എനിക്ക് തന്ന ആ കോൺഫിഡൻസിലാണ് ഞാൻ ഇന്നും ഇത് ചെയ്തു പോയി കൊണ്ടിരുന്നത് ഇന്ന് അത്യാവശ്യം നന്നായിട്ട് തുന്നാനും തയ്ക്കാനും എനിക്ക് ഉള്ള വർക്കുകൾ കിട്ടുന്നുണ്ട് അതിനെല്ലാം കാരണം അല്ലെങ്കിൽ അതിനെല്ലാം എന്നെ സഹായിച്ചത് ആ അദ്ധ്യാപകനാണ് ഇന്നും ഞാൻ പലപ്പോഴും ഓരോന്ന് തയ്ക്കുമ്പോഴും അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ അതിൽ ത ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴും ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കാറുണ്ട് അദ്ദേഹം എനിക്ക് വേണ്ട അഭിപ്രായങ്ങൾ തരാറുമുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലും ഞാൻ ഏറ്റവും കൂടുതൽ സഹായം ചോദിക്കുന്നതും ആ അദ്ധ്യാപകനോട് തന്നെയാണ് അത്രയും ആത്മബന്ധം എനിക്ക് ഉള്ളത് അദ്ദേഹം എനിക്ക് തന്ന കരുതലും അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു വിശ്വസ്തയുമാണ് അപ്പോൾ ഇന്നും ആ ഒരു അദ്ധ്യാപകനത്തെ അദ്ധ്യാപനത്തിൻ്റെ കീഴിൽ നിന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഇപ്പോൾ ഇത്രേം വർക്ക് കിട്ടുന്നതും അല്ലെങ്കിൽ ഞാൻ അത്രേം വ്യാപൃതനായി അതിനകത്ത് കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുന്നതും അപ്പം അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ അതിന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്ന് പറയുന്നതിൽ ഞാൻ ഭയങ്കരമായിട്ട് അതിനകത്ത് ആത്മാഭിമാനം കൊള്ളുന്നുണ്ട് ഇന്ന് എന്റേത് മാത്രമല്ല എൻ്റെ വീട്ടുകാരുടെയും അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരുടെയും എൻ്റെ സുഹൃത്തുക്കളുടെയും ഉള്ള വസ്ത്രങ്ങൾ ഞാൻ തുന്നി കൊടുത്ത് അവർ അത് ഇട്ട് കഴിയുമ്പോൾ അവരുടെ സന്തോഷം എന്നോട് പങ്കു വെക്കുമ്പോള് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആ അദ്ധ്യാപകനോട് തന്നെയായിരിക്കും അന്ന് ആദ്യമായി ഞാൻ സ്റ്റിച്ച് ചെയ്തത് അല്ല ആ അദ്ധ്യാപകന് എനിക്ക് തന്ന വിശ്വാസത്തിൽ ഞാൻ ചെയ്ത ആ ഒരു ഉറപ്പിൻ മേലാണ് ഞാൻ ഇന്നും അതിനകത്ത് ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പം എത്ര എന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്നും കിടക്കുന്ന ഒരു കാര്യം ആ ഒരു ആ ഒരു എന്താ പറയാ ആ ഒരു വിശ്വാസമാണ് എന്നില് വിശ്വസിച്ച ആ സാറ് തന്ന കാര്യങ്ങത്തിൻ്റെ പുറത്താണ് ഇന്ന് ഞാൻ അതിനകത്ത് ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ ഓരോരുത്തും എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ഇന്ന് ഇതുപോലെ ചെയ്ത് തരണം എന്ന എന്നോട് അത്രയും വിശ്വാസത്തിൽ പറയുന്നത് എന്നിൽ അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കില് ഞാനും ചെയ്താൽ അത് ഭംഗിയാകും എന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ആ ഉറപ്പ് അവർക്ക് കിട്ടിയത് എനിക്ക് എൻ്റെ സാറ് തന്ന ഉറപ്പിന്റെ പുറത്താണ് അതിൽ ഞാൻ ഇന്നും അഭിമാനിക്കുന്നു അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ള കാര്യം ഇന്ന് ഞാൻ ഇതേ കാര്യങ്ങള് ഞാൻ ഒന്ന് രണ്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ അതുപോലെ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇതൊന്ന് പറഞ്ഞ് തരാമോ അല്ലേൽ എന്നെ പഠിപ്പിക്കാവോ എന്ന് ചോദിക്കുന്ന കുട്ടികളോട് ഞാൻ അതേ രീതിയിൽ തന്നെ അവരോട് പെരുമാറുന്നുണ്ട് എൻ്റെ സാറന്ന് എന്നോട് എങ്ങനെ പ്രതികരിച്ചോ അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും പ്രതികരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് അപ്പം അതിന് വേണ്ടീട്ട് എന്നെ സഹായിച്ച ആ സാറിന് ഒത്തിരി നന്ദി